ഹലോ ഇന്ന് നിങ്ങളുടെ റസ്റ്റോറന്റില് വൈകിട്ട് എനിക്കൊരു ഡിന്നറ് ഡിന്നറിന് വരാൻ താല്പര്യമുണ്ട് അപ്പം അവിടുത്തെ പാർക്കിംഗ് അവിടുത്തെ മേശ മീൻസ് എനിക്കൊരു ടേബിള് ഞങ്ങളൊരു ഒമ്പത് പത്ത് ആൾക്കാര് കാണും അപ്പം എനിക്കൊരു ഒരു റൂഫ്ടോപ്പിൽ ഉള്ള ഒരു ടേബിൾ ഫുള്ളായിട്ട് വേണം അപ്പം അതിനുവേണ്ടി ആയിരുന്നു പിന്നെ സമയം രാത്രി ഒമ്പത് ടു പന്ത്രണ്ട് ഓർ പതിനൊന്നു വരെ എനിക്ക് വേണ്ടി വരും അപ്പം ആ സമയത്ത് റൂഫ് ടോപ്പില് ഞങ്ങൾക്ക് ഡിന്നറ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ അവൈലബിളാണോന്ന് നോക്കാനാണ് അത് മാത്രമല്ല ഞങ്ങളുടെ പാർക്കിംഗ് ഞങ്ങളൊരു മൂന്ന് കാറിലായിരിക്കും വരുന്നത് സോ മൂന്ന് കാറുകള് ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ആ ടൈമില് അവിടെ ഞങ്ങൾക്ക് റൂഫ് ടോപ്പില് തന്നെ ടേബിൾ സെറ്റിംഗ്സും വേണം അപ്പം അത് അവിടെ അവൈലബിളാണോ അല്ലയോ എന്ന് അറിയാനായിരുന്നു എൻ്റെ ഫാമിലിയും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാണും ഒരു ടെന് റ്റൊലവ് പീപ്പിൾസ് കാണും സോ അപ്പ അതിനു പറ്റിയ സമ് സ്ഥലവും ഇത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്